അല്ല പറഞ്ഞോളൂ ഓക്കെ ഓക്കെ കുറച്ച് ഇച്ചിരികൂടെ സൗണ്ട് ഒന്ന് കൂട്ടുവോ ക്ലിയർ ആവുന്നില്ല അതാണേ സൗണ്ട് ഒന്ന് കൂട്ടി പറയുവോ ഓക്കെ പറഞ്ഞോളൂ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇ എയ്ജ് എത്രയാണ് ഓക്കെ ഇത് പേര് എങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എയ്ജ് റേഞ്ചിലുള്ളവർക്ക് ഒരു ബാച്ചായിട്ടാണേ അതായത് ഈവനിംങായിരിക്കും നിങ്ങൾക്ക് മെയിൻലി നമുക്ക് കോച്ചിംഗ് കൊ തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ നമ്മുടെ ഒരു ഈ കോച്ചിംഗ് ടീമിലൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ആൾ കുട്ടികൾ കാണുമായിരിക്കും അപ്പം നമുക്ക് കോച്ചിംഗ് ആദ്യമേ ഒരു ഫസ്റ്റ് വീക്ക് ട്രെയിനിംഗായിരിക്കും ജസ്റ്റ് ഒരു ട്രെയിനിംഗ് അതായത് നമ്മൾ ബേസിക്സായിരിക്കും പഠിപ്പിക്കുന്നത് ആദ്യമേ ആ അതിനു ശേഷമായിരിക്കും നമ്മൾ മെയ്നായിട്ട് ഉള്ളതിലോട്ട് കടക്കുന്നത് അപ്പോൾ മെയ്നായിട്ട് ഉള്ളവരുമായിട്ട് കടക്കുമ്പോൾ നമുക്ക് അത് അനുസരിച്ചുള്ള ജേഴ്സിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് എന്തോ അതിന്റെ കുറേ കാര്യങ്ങൾ മെ സാധനങ്ങൾ മേടിക്കണം അതായത് ഫുട്ബോളുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒത്തിരി നമ്മുടെ എന്തുവാണ് ഷൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും പിന്നെ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പെർ മന്താണ് മന്ത്ലി പേയ്മെൻറ്റാണ് അത് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡായിട്ട് വരും കേട്ടോ എങ്ങനെയാണ് നേഹ ഇതിൽ ഇൻ്ററസ്റ്റിംങായിരുന്നോ ചെറുപ്പം മുതലേ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓ ശരി ശരി ശരി ആണല്ലേ ഓക്കെ നേഹ ഒറ്റയ്ക്കാണോ മീൻസ് അതോ ഞാൻ ചോദിച്ചത് ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഓക്കെ അങ്ങനെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് നേഹ ഫ്രണ്ട്സിനോടും കൂടി എന്നോട് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ പറയൂ കേട്ടോ ഓക്കെ എനിവേ നേഹ നെക്സ്റ്റ് മൺഡേ മോണിംഗ് ഒന്ന് പൊന്നോളൂ കേട്ടോ നമുക്ക് കുറേ ആപ്ലിക്കേഷനൊക്കെ ഫോമൊക്കെ ഫിൽ ചെയ്യാനുണ്ട് അതിന് ശേഷം നമുക്ക് കോച്ചിംഗിലേക്ക് കടക്കാം ഓക്കെ ഓക്കെ നേഹ ഓക്കെ ഓക്കെ താങ്ക്യൂ